ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പി ടി ഉഷ അപ്പോൾ പി ടി ഉഷയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വട്ടം കേട്ട ഒരു പേര് തന്നെയാണ് പി ടി ഉഷ എന്നു പറയുന്ന പേര് അപ്പോൾ എന്താ പറയുക നല്ല ഒരു കായികതാരം ആയിട്ടാണ് പി ടി ഉഷേനെ എല്ലാവരും കാണുന്നത് എന്താ പറയുക ഓട്ടത്തിൽ തന്നെ ഒരു വനിതയുടെ കഴിവ് തെളിയിക്കാൻ സാധിച്ച ഒരു വ്യക്തി ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് നമ്മൾ എന്താ പറയുക പി ടി ഉഷേനെ കാണുന്നത് കോഴിക്കോട് ജില്ലയിൽ ആയിക്കോട്ടെ ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പി ടി ഉഷ അപ്പോൾ അത്രതന്നെ സാമ്പത്തികമായി ഒന്നും ഒന്നുമില്ലെങ്കിൽ പോലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ആർക്കും കഴിയും എന്നുള്ളതിലെ ഒരു തെളിവ് തന്നെയാണ് പി ടി ഉഷ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കായിക വനിതകളിൽ നിന്നും നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം അതു തന്നെയാണ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം നമ്മളുടെ അടുത്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയൊരു വലിയ ഉദ്ദേശം അല്ലാതെ അതിന്റെ ഒരു എന്താ പറയുക അർത്ഥം അപ്പോൾ പരിശ്രമിച്ചാൽ നമുക്ക് വിജയം കിട്ടും എന്നു തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ